എൻ്റെ നാട് പാലക്കാട് ആണ് പാലക്കാട് ജില്ലയിലെ ത്രിവേണി ടൂറിസം ട്രാവെൽസിലെ ഏജെന്റിനെ എനിക്ക് പരിചയമുണ്ട് അവിടെ ആ ഒരു ടൂർ പാക്കറ്റ് കമ്പനിയാണ് ഞങ്ങൾ വാൽപാറ ഊട്ടി ട്രിപ്പ് പോയത് അപ്പോൾ അവരുടെ ബസ്സൊക്കെ ഒരു നമ്മളൊരു അമ്പത് ആളുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ ബസ്സും ഒരു ചെറിയ ട്രാവെലർ ആണ് ഓർഡർ ചെയ്തത് അവരുടെ വലിയ ബസ് പറഞ്ഞാൽ അടിപൊളി ബസ് ശരിക്ക് പറഞ്ഞാൽ അറിയാം അവരുടെ മ്യൂസിക് സിസ്റ്റം പിന്നെ യാത്ര സുഖം അതിനൊക്കെ പുറമെ ഡ്രൈവറും ഡ്രൈവിങ്ങും ഒക്കെ അടിപൊളി ആയിരുന്നു അവര് ഏർപ്പാട് ആക്കി തന്ന ഞങ്ങൾക്ക് വേണ്ടി ഏർപ്പാട് ആക്കി തന്ന മറ്റേ റൂം ഒക്കെ അടിപൊളി ആയിരുന്നു അപ്പോൾ ഇത്രയും നല്ലൊരു അനുഭവം വേറൊരു ഏജൻസിയിൽ കൊടുത്തിരുന്നാൽ കിട്ടിയിട്ടുണ്ടാകില്ല ഞങ്ങള് വാൽപാറ ഒരു രണ്ടു ദിവസം നിൽക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങള് വാൽപ്പാറ ചുരം ഒക്കെ കേറുമ്പോൾ ഒന്ന് പേടിച്ചു എന്നാലും ആ ഡ്രൈവിങ്ങും ഡ്രൈവറും ബസും ഇത്രയും നല്ല കണ്ടിഷനിൽ ആയിരുന്നു ബസ്സിനൊക്കെ ഓരോ ട്രിപ്പ് കൂടുമ്പോളും അവർ ടയർ മാറ്റും ഫുൾ എൻജിൻ ഓയിൽ മാറ്റും എല്ലാം കറക്ട് ആയിരുന്നു വണ്ടിക്കൊരു കുഴപ്പം പറയാൻ ഇല്ല സാധാരണ ഈ ടൂറിസം ട്രാവൽസുകാര് നഷ്ടത്തിലാണല്ലോ ഓടുക ഇപ്പോൾ ഈ വെള്ള പെയിന്റ് ഒക്കെ അടിച്ചകാരണം അവര് നഷ്ടത്തിലാണല്ലോ അവര് നഷ്ടത്തിലാണെങ്കിലും അവരുടെ വണ്ടികൾ അത്രയും പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്നുള്ള അർത്ഥം ആണ് അത് ആ ഒരു എങ്ങനെയാ ഇപ്പോൾ പറഞ്ഞു തരിക ടൂർ അടിപൊളിയാക്കിയത് ഈ ഏജൻസിക്കാർ തന്നെ അവരുടെ അവർ ബുക്ക് ചെയ്തുതന്ന റൂം ആയാലും ഫുഡ് ആയാലും എല്ലാം എല്ലാം അടിപൊളിയായിരുന്നു ഒരു കുറ്റവും പറയാൻ ഇല്ല ഞങ്ങൾ വാൽപ്പാറ അവര് പറഞ്ഞു തണുപ്പാകും മഴയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു അവർക്ക് ആ ഒരു സ്ഥലത്തിനെപ്പറ്റി അറിവും എല്ലാം കാരണം ആണ് ടുർ ഇത്രയും അടിപൊളി ആയത് പിന്നെയെന്നു പറഞ്ഞാൽ ആ ഒരു റേറ്റ് നമുക്ക് ഒരു അടിപൊളി റേറ്റ് ഒപ്പിച്ചുതന്നു കറക്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നാൽ അതിനു അനുസരിച്ചു നല്ലൊരു എന്താ പറയുക അന്തരീക്ഷം സൃഷ്ട്ടിച്ചു തന്നു അവര് രാത്രി ആയാൽ ഈ ക്യാമ്പ് ഫയറ് അതെല്ലാം അവര് ഞങ്ങൾക്ക് റെഡി ആക്കി തന്നു പിന്നെ ആ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ അയാൾക്ക് ആയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു റൂം ഒക്കെ അവര് ഈ ഏജൻസിക്കാർ തന്നെ കൊടുത്തിരുന്നു ഏജൻസിക്കാർ അവരുടെ യാത്രക്കാരെ മാത്രമല്ല ഈ അവരുടെ ജീവനക്കാരെയും എല്ലാവരെയും നന്നായി നോക്കുന്നുണ്ട് എന്നുള്ളൊരു തെളിവ് ആണത് ഞാൻ ഇതിനിടയിൽ ഡ്രൈവറുമായി ഒരു സംഭാഷണം നടത്തി അപ്പോൾ അയാൾ പറയുകയാ ഈ ഏജൻസി ചേർന്നതാണ് ഏറ്റവും നല്ല തീരുമാനം എന്ന് അയാളുടെ അയാളുടെ മുഖത്തുതന്നെ ഉണ്ടായിരുന്നു അയാളുടെ ഒരു സന്തോഷം ഇല്ലെങ്കിൽ സാധാരണ ഏജെൻസിക്കാരുടെയൊക്കെ മുഖത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു സങ്കടമാ ഈ എന്തിനാ ഈ ജോലി ചെയ്യുന്നത് എന്നൊക്കെ പക്ഷെ അയാളുടെ മുഖത്തു ഒരു ആത്മാർഥത ഉണ്ടായിരുന്നു ഇത് ഏജൻസിക്കാരുടെ തന്നെ ഒരു കഴിവ് കൊണ്ടുതന്നെയാകണം അതോ ഇനി ഈ ഡ്രൈവറുടെ ഒരു ഇതാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അടിപൊളി ആയിരുന്നു